ആരോഗ്യ സംരക്ഷണം സാമൂഹിക പിന്തുണ അന്തസ്സ് എന്നിവയുടെ കാര്യത്തിൽ കോഴിക്കോട് ജില്ലയിലെ വയോജനങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് മെയിൻ ആയിട്ട് എന്ന് വെച്ചിട്ടുണ്ടേൽ നമ്മൾ അതായത് നമ്മൾ വയോജനങ്ങൾ അവർ അവരുടെ മക്കളെ ഒക്കെ നല്ലരീതിയിൽ അതായത് പത്ത് ഇരുപത്തെട്ട് വയസ് വരെ ഒക്കെ നോക്കി അവരെ കല്യാണം ഒക്കെ കഴിച്ച് കൊടുത്ത് അവിടെ ഒരു പെണ്ണ് വന്നിട്ടുണ്ടേൽ പിന്നെ പെണ്ണിൻ്റെ പുറകെ ആയി പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അച്ഛനെയും അമ്മേനെയും ശ്രദ്ധിക്കാൻ പറ്റാണ്ടായി പിന്നെ അവർക്ക് അവരുടെ കുടുംബമായി കുട്ടികളായി അങ്ങനെയായി അതായത് അച്ഛൻ അമ്മമാർ ഒക്കെ ബാധ്യതയായി പിന്നെ എന്ന് വച്ചിട്ടുണ്ടേൽ അവരെ ഒരു നേരം ഹോസ്പിറ്റലിൽ കൊണ്ട് പോകാൻ പോലും മടിക്കുന്ന മക്കളാണ് ഇപ്പോൾ ഒക്കെ ഉള്ളത് അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതായത് അവര് തീരെ വയ്യാണ്ട് കിടന്നിട്ടുണ്ടേൽ ഒരു മൂലയ്ക്ക് കിടക്ക് അവര് മൈൻഡ് ആയി കാരണം അവരുടെ സ്വത്ത് കാര്യങ്ങളൊക്കെ എഴുതിയെടുത്ത് ലാസ്റ്റ് അവരെ നോക്കാൻ പറ്റാതെ വൃദ്ധസദനത്തിൽ ഒക്കെ കൊണ്ട് വിടുക അങ്ങനെയുള്ള അവസ്ഥയൊക്കെ ആയികൊണ്ടിരിക്കുവാണ് ഇപ്പോൾ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടേൽ ഹോസ്പിറ്റലിൽ കൊണ്ട് പോകാൻ പോലും ആരുമില്ലാണ്ട് കിടക്കുന്ന ഒരുപാട് നമ്മൾ അറിയാത്ത ഒരുപാട് അച്ഛൻ അമ്മമാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ടാവും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടേൽ അവർക്ക് കൈക്കും കാലിനും വയ്യാണ്ടായിട്ടുണ്ടെൽ പിന്നെ ഒരു രക്ഷയില്ല അവർക്ക് മക്കളെ ആശ്രയം തന്നെ വേണ്ടിവരും പക്ഷെ മക്കള് നോക്കാൻ ഇല്ലെങ്കിൽ അവരുടെ അവസ്ഥ വളരെ പരിതാപകാരവുമാണ്